ഹലോ അതെ ആരാണ് വിളിക്കുന്നത് ആ ഞാൻ മോനോട് പറഞ്ഞതായിരുന്നു വിളിക്കണമെന്ന് മോൻ എന്താണ് ആ മോൻ എന്തായിരുന്നു ഈ മാസത്തെ ഫീസ് തരാഞ്ഞത് ആ രണ്ട് മൂന്ന് പേരെ ഉള്ളായിരുന്നു ഫീസ്സ് തരാൻ അതാണ് ഞാൻ ചോദിച്ചത് മോൻ്റെ അടുത്ത് ആ ആ അവൻ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പഠിക്കുന്നൊക്കെയുണ്ട് ഇവിടത്തെ നാല് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം മനസ്സിലാവുന്നൊക്കെയുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ആ മോനെ വീട്ടിൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം അവനെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്റ്റീസ് ചെയ്യിപ്പിക്കുക ഒക്കെ വേണം ഗിത്താറ് ആ ചെയ്യാതിരുന്നാൽ പിന്നെ അവനും കൂടെ മടിയായി പോകത്തില്ലെ അപ്പം വീട്ടിലും കൂടെ കുറച്ച് ശ്രദ്ധിയ്ക്കണം ആൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ കൂട്തൽ നല്ലോണം പഠിക്കുന്നുവെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉഴപ്പിത്തുടങ്ങും അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ആ ആ എന്നാൽ ശരി എന്നാൽ